എൻ്റെ പ്രദേശത്തെ ഗതാഗത മാര്ഗങ്ങള് ഏതൊക്കെയാണെന്ന് പറഞ്ഞാല് റോഡ് ഗതാഗതം ഇണ്ട് അപ്പോൾ അത് തീര്ച്ചയായും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഒരുപാട് ഗ്രാമപ്രദേശങ്ങളായിക്കോട്ടെ ഗതാഗത മാര്ഗ്ഗങ്ങള് എല്ലായ്പ്പോഴും നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചു കൂടി സുഖമമായ യാത്രയാണ് എല്ലാവര്ക്കും ഉള്ളത് ബസ്സ് ബസ്സുകള് റെയില്വേ വിമാനങ്ങള് ഇവയൊക്കെ ഈ ഈയൊരു ഗതാഗത മാര്ഗ്ഗങ്ങളുടെ ഗുണനിലവാരം എന്ന് പറയുമ്പോള് ബസ്സില് യാത്രചെയ്യുന്ന സമയത്ത് നമുക്കൊരുപാട് ബസ്സുകള് ഇപ്പോൾ നമുക്ക് ബസ്സു സര്വീസുകള് ഒരുപാട് നമുക്ക് ലഭ്യമാണ് എല്ലാ സ്ഥലങ്ങളിലോട്ടും ബസ്സ് സൗകര്യമാണ് ഇപ്പോൾ ബസ്സിനുള്ള ചാര്ജ് ബസ് ചാര്ജ് മിതമായ നിരക്കിലുള്ള ചാര്ജ്ജന്നെയാണ് റെയില്വേയിലായിക്കോട്ടേ എത്രയോ ദൂര സ്ഥലങ്ങളിലോട്ട് നി കുറച്ചു സമയംകൊണ്ട് നമുക്ക് റെയില്വേ അല്ലെങ്കില് ട്രെയിന് സര്വീസ് വഴി നമുക്ക്